ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമോ എന്ന ക്വസ്റ്റ്യന് ആരോഗ്യ മേഖലകളില് ഏറ്റോം ഗണ്യമായ പുരോഗതി ഉള്ളൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് നിസംശയം പറയാനായിട്ട് സാധിക്കും ആയുര്വേദ ചികിത്സാ രീതികൾ പിന്തുടരുന്ന ഇന്ത്യയിൽ ഇപ്പം നമ്മൾ കൂടുതലും ആയുര്വേദത്തിനോടൊപ്പം നമ്മൾ അലോപ്പതിയും ഉണ്ട് ഏത് ഏകദേശം ആയിരം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപതോളം മെഡിക്ക ക്കോളേജ്കളും അതോടൊപ്പം വരുന്ന ക്ലിനിക്കുകളുമെല്ലാം നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ പ്രവര്ത്തിക്കുന്നു